ഞാൻ ബൈക്കിൽ സന്ദർശിച്ച അല്ലെങ്കിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയിലെ സ്ഥലം എന്നു പറയുന്നത് ഹിമാലയമാണ് ഹിമാലയയിലേക്ക് ഒത്തിരി വർഷം മുൻപുതൊട്ടേ എനിക്കുള്ള ആഗ്രഹമാണ് ഹിമാലയയില് പോവുക എന്നുള്ളത് അത് ബൈക്കില് പോവുകയെന്നു പറയുമ്പോള് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോള് അതിലൂടെ ആ ഒരു മഞ്ഞിലൂടെയും ആ മഞ്ഞിൻ്റെ തണുപ്പിലൂടെയും ഒക്കെ നമ്മളൊരു ബൈക്ക് യാത്ര ചെയ്യുമ്പോള് അത് വളരെ മികച്ച ഒരനുഭവമാണു നമുക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലൊരു അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇന്ത്യയില് നമുക്കു കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ബൈക്കില് പോവുക എന്നു പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഹിമാലയയിലോട്ടു പോവുക എന്നുള്ളതാണ് ഹിമാലയയിലേക്ക് ഒരു ബൈക്ക് യാത്ര പോവുകയെന്നു പറയുന്നതു വളരെ മനോഹരായിട്ടുള്ളൊരു കാര്യമാണ് അത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റരാളുടെ കൂടെ ആയാലും നമുക്കു നല്ല ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോള് ഞാന് എപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണത് അതുപോലെ ഞാനൊരു സ്ഥലം നിർദ്ദേശിക്കാൻ ഉണ്ടോ എന്ന് എൻ്റെയടുത്തു ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സ്ഥലങ്ങള് നമുക്കു പറയാൻ പറ്റും ഇപ്പോള് എത്ര എത്ര എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇന്ത്യയില് കാണാൻ പാകത്തിനും നിറയെ സ്ഥലങ്ങളുണ്ട് അപ്പോള് അവിടെയൊക്കെ പോയി ബൈക്ക് യാത്രയില് ഇതെല്ലാം കണ്ട് മനസ്സു നിറഞ്ഞു വരികയെന്നു പറയുന്നത് വലിയൊരു കാര്യമാണ്